ഹലോ സംഗമം ഹോട്ടൽ അല്ലേ ഞങ്ങൾ അവിടുന്ന് ഒരു അൽഫാമും രണ്ട് പൊറോട്ടയും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫോണിൽനിന്ന് അതിൻ്റെ പേയ്മെൻറ്റും ഞാൻ ഓൺലൈൻ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കിട്ടിയോ അതെന്താണെന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മളോട് ഒന്ന് വിളിച്ച് പറയാമോ